പരിസ്ഥിതി സംരക്ഷണം ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവും നമ്മുടെ ആവിശ്യവുമാണ് നാം സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ആരോഗ്യമുള്ള പരിസ്ഥിതിയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്നാൽ ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതിയെ ചൂഷ്ണം ചെയ്യുന്ന വളരെയധികം കാര്യങ്ങൾ നടക്കുകയും പരിസ്ഥിതിയെ വേറൊരു ഉപഭോഗവസ്തുമാത്രമായ്ട്ട് കരുതുകയും സ്വാർത്ഥലാഭത്തിനും കൊള്ളക്കുംവേണ്ടി ചൂഷ്ണം ചെയ്യ ചെയ്യപ്പെടുന്ന കാഴ്ച്ചകളാണ് കാണാൻ സാധിക്കുന്നത് വീട്ടിലെയും പുരയിടത്തിലേയും വേസ്റ്റ്കള് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങള് എന്തെല്ലാം മാലിന്യങ്ങളൊണ്ടോ അതെല്ലാം പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുകയും നദികളിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒര് കാഴ്ച്ച നാടെങ്ങും കാണപ്പെടുന്ന ഒരവസ്ഥയാണ് വ്യവസായ മേഘലകളിലെ മാലിന്യങ്ങൾ കടകളിലെ മാലിന്യങ്ങൾ നമ്മുടെ ഉപയോഗ സാധനങ്ങളുടെ സാധനങ്ങൾ പലതും കേടാകുമ്പോൾ വലിച്ചെറിയുന്ന ഇതെല്ലാം പരിസ്ഥിതിയിലേക്കാണ് ഇവിടെ സംസ്കരണത്തിന് വേണ്ട കാര്യങ്ങളൊന്നും നാം പലപ്പോഴും ചെയ്യാറില്ല ഇനി മാലിന്യങ്ങൾ ശേഖരിക്കുവാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പോലും അത് കൈമാറാൻ നാം വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത് പരമാവധി നമ്മുടെ മാലിന്യങ്ങൾ ശെരിയായ രീതിയിൽ സംസ്ക്കരിക്കുന്നതിനായിട്ടും പരിസ്ഥിതിക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റുള്ളവർക്കും നമുക്കും ഉപദ്രവകരമാവാത്ത രീതിയിൽ റീസൈക്കിൾ ചെയ്യുന്ന ഇടങ്ങളിലേക്ക് അവ കൈമാറുന്നതിനായ്ട്ട് നാം പരിശ്രമിക്കണം ജൈവ മാലിന്യങ്ങളാണെങ്കിൽപ്പോലും നമുക്കുപയോഗപ്രദമായ രീതിയിൽ അതിനെ സംസ്കരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ടൂറിസം മേഘല വളരെയധികം വർദ്ധിച്ച് വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നദികൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്ലാസ്റ്റിക് ബോക്സ്കൾ വാട്ടർ ബോട്ടിലുകൾ ഇവയെല്ലാം നദികളിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്ന കാഴ്ച്ച വളരെയധികം വേദനാജനകമാണ് ഇങ്ങനെ നദികളിൽ മാലിന്യം അടിഞ്ഞു കൂടുന്നതും വെള്ളം അഴ്ക്കാകുന്നതിനും വിഷമ വിഷം അതിൽ പകരപ്പെടുന്നതിനും നദീ സമ്പത്തിലുള്ള മൽസ്യങ്ങൾ ചത്തൊടുങ്ങുന്നതിനും ഈ വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒന്നുപോലെ ദുരിതം വിതയ്ക്ക്ന്ന രോഗം വിതയ്ക്കുന്ന ഒര് കാഴ്ച്ചയാണ് നാം കാണുന്നത് കായലുകളൊക്കെ പലപ്പോഴും ജലസസ്യങ്ങൾ നിറയുന്നതിന് പകരം പ്ലാസ്റ്റിക്ക്കൾ കൊണ്ട് നിറയുന്നതിന് വളരെയധികം വേദനാജനകമായ കാഴ്ച്ചയാണ് അത്കൊണ്ട് നമ്മളോരോര്ത്തരും വ്യക്തിപരമായും കൂട്ടായും നമ്മുടെ നദികളേയും കായലുകളേയും സംരക്ഷിക്കുവാൻ നമ്മളായിരിക്കുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വളരെധികം ശ്രമിക്കേണ്ടതുണ്ട് മണൽ ഖനനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നദികളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കച്ചവടമനസ്ഥിതിയോടെ മാത്രം പ്രവർത്തിക്കാതെ ഭൂമിക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള ഒരു സ്നേഹം നാളത്തെ തലമുറയെക്കുറിച്ചുള്ള ഒര് അവബോധം നമുക്കുണ്ടായിരിക്കണം ഇന്ന് നാം അവശേഷിപ്പിച്ചതാണ് നാളെ നമ്മുടെ തലമുറകൾ പടുത്തുറത്താനുള്ളത് അവർക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കാൻ നമുക്കുണ്ടായിരിക്കണം വിഷലിപ്തമായ ഈ ഭൂമിയിലെ പകർച്ചവ്യാധികളിലേക്കോ മാരകമായ രോഗങ്ങളിലേക്കോ അവരെ തള്ളിവിട്കയല്ല വേണ്ടത് എല്ലാതരത്തിൽ ഉള്ള മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട ഒര് ഹരിതഭൂമിയെ അവർക്ക് സംര സമ്മാനിക്കുവാൻ നമുക്കു സാധിക്കണം അതിനായിട്ട് സാധിക്കുന്നെടത്തോളം പച്ചപ്പുകളെ സംരക്ഷിക്കുവാൻ കൃഷികൾ വളർത്തുവാൻ മരങ്ങൾ നട്ട്പിടിപ്പിക്കുവാൻ ഉള്ള ഉള്ള വൃക്ഷങ്ങൾക്ക് കൂട്തൽ സംരക്ഷണം നൽകുവാൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം അങ്ങനെ ശുദ്ധവായു ശ്വസിക്കുവാൻ ശുദ്ധജലം കുടിക്കുവാൻ തണൽ നിറഞ്ഞ ഒര് ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം